ഞങ്ങളുടെ വീട്ടിൽ കക്കൂസ് ഉണ്ട് അത് എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് സെപ്റ്റിക് ടാങ്കുള്ള നല്ല കക്കൂസ് ആണ് അതില്ലാതെ വന്നാൽ അനേകർ ബുദ്ധിമുട്ടുന്നത് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കക്കൂസില്ലാത്തവരുടെ ബുദ്ധിമുട്ട് മറയില്ല അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കില്ല അതല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പ്രായമുള്ള അനേകർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാവീടുകളിലും വെയ് വെയ്ക്കുവാനുള്ള സാഹചര്യം പലർക്കുമില്ല അതുകൊണ്ടുതന്നെ പലർക്കും അതു ബുദ്ധിമുട്ടായിത്തീരുന്നുണ്ട് ഇന്ന് കക്കൂസില്ലാത്തവരുടെ ബുദ്ധിമുട്ട് അനേകർ വന്നു പഞ്ചായത്തിൽ അതിൻ്റെ വിഷമം പറയുന്നതു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരയേറെ ബുദ്ധിമുട്ടു തോന്നിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ പഞ്ചായത്തുകളിൽ കക്കൂസില്ലാത്തവരായിട്ടു ആരുമില്ല പഞ്ചായത്തു ഫണ്ടുപയോഗിച്ചു കൊണ്ട് ഇവർക്കെല്ലാവർക്കും തന്നെ ആ കക്കൂസുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ഫണ്ടും പ്രത്യേകം നമ്മൾ മാറ്റി എല്ലാവർഷവും മാറ്റി വെച്ചുകൊണ്ട് ചിലകക്കൂസ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കക്കൂസുകൾക്ക് നമ്മൾ മെയിൻറ്റനൻസ് കൊടുക്കുന്നുണ്ട് കൊടുത്തുകൊണ്ട് കക്കൂസ് നിർമ്മാണനം നിർമ്മാണം നടത്തിക്കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആർക്കും കക്കൂസില്ലാത്ത ഒരവസ്ഥ ഇപ്പോഴില്ല ബുദ്ധിമുട്ടാണ് അതൊക്കെ നമുക്ക് ഒത്തിരിയേറെ അറിയാവുന്നതാണ് കക്കൂസില്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടാണ് കക്കൂസില്ലാതെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എന്നാൽ ഒരു പുരുഷൻ ആണെങ്കിൽ എവിടെയെങ്കിലും നിന്നിട്ട് അവനു കാര്യം സാധിക്കാം പക്ഷെ ഒരു സ്ത്രീ ഒരിക്കലും അവൾക്ക് പുറത്തുനിന്നുകൊണ്ടു ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് തീർച്ചയായിട്ടും കക്കൂസില്ലാത്തതു വലിയ ബുദ്ധിമുട്ടു തന്നെയാണെന്നു എനിക്കു മനസ്സിലാക്കാൻ സാധിക്കും